ഇരുപത്തിനാല് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരം